ഇപ്പം സ്ത്രീകൾ ഏറ്റവും കൂടുതല് അതായത് സ്ത്രീകൾ കായികവിനോദത്തില് കൂടുതൽ ഏർപ്പെടുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീ എന്നത് പി ടി ഉഷയാണ് അവർ വന്ന വഴികൾ ഇപ്പോഴും അവർ ഒരു സ്കൂളിൽ സ്കൂൾ പോലെ സ്പോർട്സിന്റെ ഇത് നടത്തുന്നുണ്ട് അവർ അച്ചീവ് ചെയ്തത് നല്ലൊരു ഓട്ടക്കാരിയാണ് ഒളിമ്പ്യനിൽ വരെ ഓടാൻ പറ്റി എന്നാണ് തോന്നുന്നത് അപ്പം ടിന്റു ലൂക്കോ അപ്പോൾ സ്ത്രീകൾ മുൻനിരയിലോട്ട് വരണം അവർക്ക് എന്ത് കൊണ്ട് സ്പോർട്സ് ചെയ്തുകൂടാ എല്ലാവർക്കും ചെയ്യാം എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പോർട്സിലും സ്ത്രീകളും പുരുഷന്മാരുടെ ഒപ്പം ഒപ്പം വരണം ഇപ്പോൾ തന്നെ ക്രിക്കറ്റില് സ്ത്രീ വിഭാഗം വനിത ക്രിക്കറ്റ് ടീം രൂപീകരിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ വിധത്തിലും സ്ത്രീകളും സ്ത്രീകൾക്കും അവസരം കൊടുക്കണം അത് അതായിരിക്കും നമ്മള് മുന്നോട്ട് ചിന്തിക്കണം അപ്പം എല്ലാവരും ഒരാളെ ആണുങ്ങൾക്കും മാത്രം ചെയ്യാൻ പറ്റാത്ത മേഖലയിലേക്ക് സ്ത്രീകൾ കൈ വെച്ചതുമോ കൈ വെച്ച് വരുന്നുണ്ട് അതേപോലെത്തന്നെ സ്പോർട്സിലും സ്ത്രീകളും ഒരു പങ്ക് നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് അപ്പം അതിനുദാഹരണമാണ് പി ടി ഉഷ പോലുള്ള സ്ത്രീകള്